മലയാള സംസാരം വർദ്ധിപ്പിച്ചെടുക്കാൻ സർക്കാര് നടത്തുന്ന മലയാളരചന മത്സരം മലയാള സംഭാഷണം മലയാള പ്രസംഗം മലയാളം അതുപോലത്തെ മലയാളം ഉൾക്കൊള്ളുന്ന ഒരുപാട് പരിപാടികൾ ഇതെല്ലാം കേരളത്തിൽത്തന്നെ മലയാളം വളരെ അധികം സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത ചില കുട്ടികൾക്കും അതുപോലുള്ള മുതിർന്നവർക്കും വളരെ ഹെല്പ് ഹെല്പ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് ഇതിൽ പങ്കെടുക്കുന്നതിലൂടെ നമ്മുടെ മലയാള സ്കില്ല് ഡെവലപ്പ് ആവുകയും അതിലേക്കുള്ള നമുക്ക് മലയാളത്തിലേക്കുള്ള ഇഷ്ടം കൂടുകയും ചെയ്യും